ഹലോ ഹലോ ഹലോ അതേലൊ ആ എന്താണെന്ന് പറഞ്ഞോളു ആ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാമോ ഇവടെ ജിലേബി ഉണ്ട് ലഡ്ഡു പല തരത്തിലുള്ളത് ഉണ്ട് പിന്നെ അല്ലാതെ തന്നെ മിട്ടായി ചോക്ലേറ്റ് ചോക്ലേറ്റ് കേക്ക് അങ്ങനെ ഉള്ള കുറേ സാധനങ്ങൾ ഉണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് ന്നൊന്ന് പറയാമോ ആ ഉണ്ടല്ലൊ ആ മ്മ് ആ ആ ആ അതേ അതേ ഉണ്ടല്ലൊ ആ ഇതിന് ഓരോന്നിനും ഓരോ റേഞ്ച് റേറ്റ് ആണ് അപ്പം അതിൻറ്റേതായ കുറേ ഇതുണ്ട് അപ്പം നിങ്ങൾക്ക് എന്നത്തേക്കാണ് വേണ്ടത് എന്നൊന്ന് പറയാമോ ആണോ ആ നിങ്ങൾ ആരേലും വരുമോ അതോ ഞങ്ങൾ ഇൻ അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് തരണോ ആ ഉണ്ടല്ലൊ അപ്പം നിങ്ങൾക്ക് അപ്പോൾ ഇപ്പം ഇതിന് പൈസ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി ആ ഓ

കേക്കിൻ്റെ റേറ്റ് നാന്നൂറ് തൊട്ട് അങ്ങ് പോകും ഹലോ ആ കേൾക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞോ മൊത്തം ഒരു രണ്ടായിരത്തി സംതിംഗ് ഒക്കെ ആകും ആ ഇത് മുരിക്കാശ്ശേരി തന്നെയാണ് ലൊക്കേഷൻ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ആ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ നിങ്ങൾ അപ്പം ഞങ്ങൾ അപ്പം അങ്ങോട്ട് കൊണ്ട് തന്നാൽ പോരേ ഹലോ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോ ആ ഓക്കെ എന്തോരം വേണം എന്നൊന്ന് പറയാമോ ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ആ അതെ അതെ അതെ ആ ആ നോക്കാം എന്നാൽ ശരി